അപ്പം എനിക്ക് ഇഷ്ടം ക്രിക്കറ്റാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഗ്രൗണ്ടായിട്ടില്ല അപ്പം സിക്സ് ഫോറൊക്കെ അടിക്കുമ്പോൾ ഏതെങ്കിലും കാട്ടിൽ കൂടെയൊക്കെ ആയിരിക്കും പോകുന്നത് അന്നേരം അത് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ദേഹത്ത് മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്നു വച്ചു കഴിഞ്ഞാൽ കളിക്കാനായിട്ട് ഇപ്പം ഏഴുപേരായാലും പതിനാല് പേരൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിൽക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പം അപ്പം മറ്റു പ്രദേശങ്ങളിലെ ഗ്രൗണ്ടുകളെയെക്കെ നമ്മൾ ആശ്രയിക്കാറുണ്ട് അപ്പം നമുക്ക് ഗ്രൗണ്ട് ഇല്ലാത്തതൊക്കെ വലിയ തടസ്സങ്ങളാണ് ഫുട്ബോൾ കളിക്കാനാണെങ്കിലും മറ്റ് ഏത് കളിക്കണെങ്കിലും വലിയ ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അതിനെ എതിരെ മേലാധികാരികളോട് ഒത്തിരി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവർ ചെയ്യാറൊന്നുമില്ല ഈ ക ളിക്കാനെക്കെയായിട്ട് അപ്പം ഇപ്പം ക്രിക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോള് പോകുന്നത് ഒന്നോ രണ്ടോ കിലോമീറ്റർ അപ്പുറത്തായിരിക്കും പോകുന്നത് അപ്പം നമുക്ക് ബോൾ എടുക്കാനായിട്ട് പോകാനുള്ള ആൾക്കാരെ എണ്ണത്തിൽ കുറവ് വരും കളിക്കുന്നതിനകത്ത് ഒത്തിരി സമയങ്ങളെടുക്കും ഇപ്പം നമ്മൾ ഉച്ചവരെ കളിക്കുന്നൂ എന്ന് വച്ച് കഴിഞ്ഞാൽ കളി ആ ടൈമില് ഒത്തിരിയൊക്കെയായി നീണ്ടക്കെ പോവാറൊക്കെയുണ്ട് ചെയ്യാറ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കളിക്കാനായിട്ട് ഇപ്പം ഗ്രൗണ്ടില്ലെന്നുള്ള പേരിലെക്കെ ആൾക്കാർ കൂട്ടത്തിൽ കൂട്ടുകാർ വരാനൊക്കെയായിട്ട് ആൾക്കാർ ഒത്തിരി തടസ്സങ്ങൾ പറയും എടാ ഗ്രൗണ്ടില്ലല്ലോ കളിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയല്ലേ എന്നൊക്കെ ചെറിയ ഒത്തിരി പേര് നമ്മളെടുത്ത് ഇങ്ങനെ പിന്നെ അകലം പാലിച്ച് അങ്ങനെ നമ്മൾ ആരും കളി ഉപേക്ഷിക്കേണ്ട സാഹചര്യക്കെയായിട്ട് വരും കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ടും ഒക്കെ അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളൊക്കെയാണ് ഒത്തിരി നമുക്ക് ഇപ്പം നേരിടുന്നത് ഇപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യുവത്വങ്ങളെല്ലാം ക്രിക്കറ്റ് ഫുട്ബോള് അങ്ങനെ അങ്ങനെയുള്ള ഓരോരോ ഗെയിമുകളൊക്കെയായിട്ട് കളികളൊക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങിത്തിരിക്കാറൊക്കെയുണ്ട് ഇപ്പം നിലവിൽ ക്രിക്കറ്റ് മാച്ചുകൾ പല സ്ഥലങ്ങളിലുള്ളവർ മാച്ചൊക്കെ ആയിട്ട് വരുമ്പം നമുക്ക് സ്വാഭാവികായിട്ടും തോറ്റു പോവുകയൊക്കെ ചെയ്യും നമ്മൾ നമ്മുടെ ചെറിയ സ്ഥലത്തിനകത്ത് വച്ച് കളിച്ചു പഠിച്ചിട്ട് വലിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത് കളിക്കാനുള്ള ഭയങ്കരമായുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും